ആളുകളെ അഭിമുഖികരിക്കുന്ന സാങ്കേതിക ബുദ്ധിമുട്ടുകളെ പ്രത്യേകിച്ച് പ്രായമായവർക്കാണ് അത് പലപ്പോഴും അനുഭവിക്കാൻ അനുഭവപ്പെടുന്നത് പ്രധാനമായിട്ടും ഇന്ന് കണ്ടിരിക്കുന്നത് എ ടി എമ്മിൽ നിന്ന് നിന്നും പൈസ എടുക്കാൻ പലപ്പോഴും പ്രായമുള്ളവർക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് സാധിക്കാതെ വരുന്നുണ്ട് അപ്പോഴ് അവരെ ഒക്കെ ഇത്തിരി ആ കാര്യങ്ങളിലൊക്കെ ചിലപ്പം സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെ പൈസ അയക്കുമ്പഴും ഇപ്പം എ ടി എമ്മിലും ആയിട്ടൊക്കെ അയക്കുമ്പഴ് ചിലര് അവർക്കൊക്കെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പം അവർക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും അതുപോലെ തന്നെ ചില പലർക്കും ഫോണിലെ വൈഫൈ പിന്നെ പല സ്ഥലത്ത് ചെല്ലുമ്പഴും വൈഫൈ കണക്ട് ചെയ്യാന് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പഴത്തെ കുഞ്ഞുങ്ങൾക്കെല്ലാം അതെല്ലാം നല്ലത് പോലെ അറിയാം എങ്കിലും പ്രായമായവർക്കും കുറച്ച് മുതിർന്നവർക്കും ഒക്കെയാണ് അത് കൂടുതല് അറിയാതെ വരുന്നത് അപ്പോഴ് അവരെയൊക്കെ വേണ്ടവിധത്തിലൊക്കെ പറ്റുന്ന വിധത്തിലെല്ലാം അവരെ നമുക്ക് സഹായിക്കാം